ഇപ്പം കോഴിക്കോട് ജില്ലയിൽ നമ്മളിങ്ങനെ കൂടുതലും കാണുന്നത് മുസ്ലിംസിനെ ഒക്കെ ആണ് അപ്പം അവരുടെ എന്താ പറയുക ഭാഷാപരമായിട്ട് അവർക്ക് നല്ല വ്യത്യാസം ഉണ്ട് പിന്നെ അവരുടെ ആചാരങ്ങൾ ആയിക്കോട്ടെ എല്ലാ കാര്യത്തിനും അവരവരുടെ അവരുടേതായ ഒരു രീതി മുന്നോട്ട് വെക്കുന്നവരാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ മുസ്ലിംസിനെ എപ്പോഴും സ്ത്രീകളും പൊതുവെ എന്താ പറയുക ഈ തട്ടം പോലെയുള്ള സാധനങ്ങൾ ഒന്നും ഇടാണ്ട് പുറത്തിറങ്ങില്ല എന്താ മഫ്ത എന്താ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഒക്കെ ആണ് അവർ തലയിൽ ഇടുന്നത് പിന്നെ മുസ്ലിംസ് ആണുങ്ങൾ ആണെങ്കിൽ അവർ തലയിൽ എപ്പോഴും തൊപ്പി ഒക്കെ വെച്ചിട്ടേ നടക്കുകയുള്ളൂ അവർ എപ്പോഴും എന്താ പറയുക മുസ്ലിംസ് ആയിട്ട് തന്നെ ആണ് മെയിൻ ആയിട്ട് അവർ കൂട്ട് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത് അപ്പം അവരുടെ ഒരു ഗാങ് ആയിട്ടാണ് അവർ എപ്പോഴും നടക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ അതിന് പുറമെ വേറൊരു ഗാങ് എന്നൊക്കെ പായാനാണെങ്കിൽ ഹിന്ദുക്കൾ അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു രീതിയിൽ മുൻപോട്ട് പോകാറില്ല പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ കടലിൽ മത്സ്യ ബന്ധനത്തിന് പോകുന്നവരാണ് അവർ എപ്പോഴും എന്താ പറയുക ഒരു ടീം ആയിട്ട് തന്നെ ആണ് നടക്കുന്നതും അവരുടെ രീതിയും കാര്യങ്ങളും എല്ലാം വ്യത്യസ്ഥമാണ് അവരെല്ലാം ഒരുപോലെ എന്താ പറയുക രാവിലെ പോകുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റിട്ടേൺ വരുന്നു മീനെല്ലാം കാര്യങ്ങളെല്ലാം കൊണ്ട് വരുന്നു അവർ അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം അത് പോലെ രണ്ട് തരത്തിൽ ആൾക്കാർ അങ്ങനെ നമ്മൾ കോഴിക്കോട് കൂടുതലായിട്ടും ഗാങ് ആയിട്ട് കാണുന്നത് അങ്ങനെ ഉള്ളവരെ ആണ്